ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ ശേഖരിക്കുന്നത് സ്റ്റാമ്പ് ശേഖരിക്കുന്ന കുട്ടികളുണ്ട് വളരെ ചുരുക്കമായിട്ട് ഉള്ളൂ എങ്കിലും സ്റ്റാമ്പുകള് ശേഖരിക്കുന്ന കുട്ടികളുണ്ട് അത്പോലെതന്നെ കളിപ്പാട്ടങ്ങളോടാണവർക്ക് കൂട്തൽ താല്പര്യം പല തരത്തിലുള്ള കളിപ്പാട്ടങ്ങള് അത്പോലെ ബാർബികള് ഒക്കെ ശേഖരിക്കുന്ന കുട്ടികളുണ്ട് ചെറുപ്രായം മുതൽ പ്രായമായര് വരെ ബാർബികള് സൂക്ഷിക്കാറുണ്ട് കുറെ പ്രായവായ കുട്ടികളാണെങ്കിലും ബാർബികള് കാണുമ്പോൾ അവരുടെ ബർത്ത്ഡേയ്ക്കും മറ്റും ഒക്കെ അവർക്ക് കിട്ടുന്ന ബാർബികളൊക്കെ ഒത്തിരി സൂക്ഷിച്ച് വെക്കാറുണ്ട് അതിനോടവർക്ക് വളരെയേറെ താല്പര്യമുണ്ട് നമ്മള് പല ഷേപ്പിലുള്ളതും പല നിറത്തിലുള്ളതും ആയ ബാർബികളെക്കാണുമ്പോൾ എല്ലാ കുട്ടികളും ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും അത് ശേഖരിച്ച് വെക്കാറുണ്ട് ആൺകുട്ടികളാണെങ്കിൽ കൂട്തലും കാറുകള് അതുപോലുള്ള വാഹനങ്ങളോടാണവർക്ക് താല്പര്യം പണ്ട്കാലം മുതല് ആൺകുട്ടികൾക്ക് വാഹനങ്ങളോടൊരു പ്രത്യേക താല്പര്യമുണ്ട് പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികൾക്ക് വാഹനങ്ങളോട് താല്പര്യക്കൂടുതലുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അവർക്ക് പണ്ട് തൊട്ടേയങ്ങനെ ആയിരുന്നു അവരുടെ ഒരു ജനിതക മായ കാര്യങ്ങളായിരിക്കാം അവർക്ക് വാഹനങ്ങളോട് താല്പര്യക്കൂടുതലുണ്ട് ഏത് രീതിയിലുള്ള കാറുകളും പല രീതിയിലുള്ള കാറുകൾ അത് സൂക്ഷിച്ച് വെക്കുക അതവർക്ക് വാങ്ങിക്കാനും അതുപോലെതന്നെ സൂക്ഷിച്ച് വെക്കാനും അതുപോലെ അത് അത് എങ്ങനെയാണ് നിർമ്മിച്ചതെന്നവർക്കത് നോക്കി മനസ്സിലാക്കാനും റിപ്പെയർ ചെയ്യാനും ഒക്കെ ആൺകട്ടികൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികള് കളിപ്പാട്ടങ്ങളൊത്തിരി ശേഖരിച്ച് വെക്കുന്നവരാണ് എന്ന് വെച്ചാൽ പണ്ടത്തെക്കാലത്തെ കളിപ്പാട്ടങ്ങള് പോലെയല്ലയിപ്പം ഏത് രീതിയിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെയാണെന്ന് ഒത്തിരി വേറെ ഒരു ഒത്തിരി പല തരത്തിലുള്ളതും പലതരത്തിലുള്ളതായ പണ്ട് കാലങ്ങളില് ഇല്ലാത്തതായ പുതിയ പുതിയ കാര്യം പുതിയ തരത്തിലുള്ളതായ കളിപ്പാട്ടങ്ങള് ഒത്തിരി ഇപ്പഴത്തെ കാലത്ത് ലഭ്യമാകുന്നുണ്ട് അതുപോലെതന്നെ അത് സൂക്ഷിച്ച് വെക്കാനും പിള്ളേർക്കൊത്തിരി താൽപര്യമുണ്ട് അത്പോലെ പെൺകുട്ടികളാണേലും കാറും അതുപോലെ മോട്ടോർ സൈക്കിൾ അങ്ങനെ ഉള്ള എന്നാ അതുപോലെ ഉള്ള കളിപ്പാട്ടങ്ങള് ളോട് ആകർഷണീയം ആണ് പണ്ട് കാലത്തെ പെൺകുട്ടികളൊന്നുമങ്ങനെ കാറുകൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും സൂക്ഷിച്ച് വെക്കില്ല പക്ഷെ ഇപ്പഴത്തെ പെൺകുട്ടികളാണെങ്കില് കാറ്കളും മോട്ടോർ സൈക്കിൾ ബസ് അങ്ങനെയുള്ള വലിയ വലിയ അങ്ങനെ ഉള്ള വാഹനങ്ങളോടൊത്തിരി താൽപര്യമുള്ളവരാണ് ആൺകുട്ടികള് കാറ്കള് മാത്രല്ല അതുപോലെ ജെ സി ബി ജെ സി ബി പോലുള്ള വാഹനങ്ങള് വിമാനം അങ്ങനെ ഉള്ള പുതിയ മോഡല് പഴയ രീതിയിലല്ല അവര് ആധുനികമായ രീതിയിൽ ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അതിനി അത്പോലെയുള്ള രീതികള് രീതികളോടുള്ള കളിപ്പാട്ടങ്ങളോട് അവർക്ക് വളരേറെ താൽപര്യമുണ്ട് അതുപോലെ നമ്മുടെ പെരുന്നാളിന് അല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് ഒക്കെ കടകൾക്കൊക്കെ വരുമ്പോൾ കുട്ടികളെല്ലാവരും എല്ലാവരും ഈ കളിപ്പാട്ടത്തോടാണ് നോട്ടം എത്ര വിലയാണെങ്കിലും അവർക്ക് കളിപ്പാട്ടങ്ങള് തോക്ക് അതുപോലെ കാറ് അതുപോലെ ഗെയിമുകളുള്ളത് അങ്ങനെ ഉള്ളതൊക്കെ കൂടെ ഗെയ്മ്കള് അത്പോലെ കുറെ സെറ്റുകളുണ്ടല്ലോ അങ്ങനെ ഒക്കെ ഉള്ള കളി സെറ്റായിട്ട് കിട്ടുന്ന കളിപ്പാട്ടങ്ങള് അങ്ങനെ ഒക്കെ അവര് കളിപ്പാട്ടങ്ങൾക്കാണ് കൂടുതലവര് പ്രാധാന്യം കൊടുക്കുന്നതും പൈസ മുടക്കുന്നത് എത്രരൂപ വേണേലും മുടക്കാനും അവർക്ക് അതിന് മടിയില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കളിപ്പാട്ടങ്ങള് ശേഖരിച്ച് വെക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്